ഒരു പുതിയ കലാചിത്രം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം റെഫറൻസ് ഒക്കെ ചെക്ക് ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു ഭാവന കാണും അത് കുറച്ചുംകൂടെ എളുപ്പമാക്കാനായിട്ട് റെഫറൻസ് ഒക്കെ നോക്കാറുണ്ട് റെഫറൻസൊക്കെ നോക്കുമ്പഴത്തേക്കും ഒരുപാട് ചിത്രങ്ങളെടുത്ത് കൂട്ടിച്ചേർത്ത് അങ്ങനെയാണ് ഒരു റെഫറൻസ് ഉണ്ടാക്കി എടുക്കുന്നത് അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതലായിട്ട് മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് ചെയ്യുന്നത് കേരളാ മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ചിത്രം എടുക്കും റെഫറൻസ് എടുക്കും ഇൻറ്റനെറ്റ് വഴി എടുത്തതിനുശേഷം അതിന് സൈസിനൊക്ക അനുയോജ്യമായിട്ടുള്ള ക്യാൻവാസ് എടുക്കുക ക്യാൻവാസ് ആദ്യമേ ബ്രഷ് കൊണ്ട് ഫുള്ള് ആയിട്ട് നനച്ചതിന് ശേഷം റെഡ് മഷികൊണ്ട് അതിനെ ഔട്ട്ലൈൻ ഇടും സാധാരണ ചിത്രം വരക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട രീതിയിലാണ് കേരള മ്യൂറൽ പെയിൻറ്റിങ് വരക്കുന്നത് ആദ്യമേ ചുവന്ന മഷികൊണ്ടാണ് ഔട്ട്ലൈൻ കൊടുക്കേണ്ടത് അതിനുശേഷം ഓരോ ഭാഗങ്ങളിലും നിറം കൊടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലോ വാഷ് കൊടുക്കണം അതിനുശേഷം ഔട്ട്ലൈൻ കൊടുത്ത് വേറെ നിറങ്ങൾ കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്ത് അതിന് ബ്ലെൻഡ് ചെയ്ത് ചേർത്തതിനുശേഷം ഓരോ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ആയിരിക്കും അതിനുശേഷം ഏറ്റവും ഒടുവിൽ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്ത് ഫിനിഷ് ചെയ്യും